ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ ഇരുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ ഇരുപത്തി ഏഴ്